മാധ്യമങ്ങളിൽ മിക്കവാറും ചർച്ച ചെയ്യാറുള്ള ഒരു കാര്യമാണ് പാർട്ടി സംബന്ധമായ കാര്യങ്ങള് ചർച്ച ചെയ്യാറുണ്ട് അതില് ഇപ്പോള് എല്ലാവരെയും എന്തോ മീറ്റിങ് പോലെ എല്ലാവരെയും വിളിച്ചിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് ലൈവായിട്ട് നമ്മളെ ന്യൂസ് ചാനലിലൊക്കെക്കൂടെ കാണിക്കുകയാണ് ഇപ്പഴത്തൊരു പരിപാടി പിന്നെ മതപരമായും ഉള്ള കാര്യങ്ങളുമാണ് നിരന്തരമായി ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ് മതപരമായ കാര്യങ്ങളും പിന്ന പാർട്ടിപരമായ കാര്യങ്ങളും അല്ലാതെ വേറെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാറില്ല ഞാൻ അങ്ങനെ കേള്ക്കാറുമില്ല ഞാൻ ന്യൂസൊന്നും പത്രം വായിച്ചാല് വായിച്ചു അങ്ങനെ ന്യൂസ് കാണാറില്ല ഞാൻ പിന്നെ ഇടയ്ക്ക് പാർട്ടിസംബന്ധമായ കാര്യം ഇപ്പോള് പാർട്ടിക്കാര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടി വയ്ക്കുന്നു ചർച്ച ചെയ്യാൻ നേരത്ത് ഇപ്പോള് വേറൊരു പാർട്ടി വേറൊരു പാർട്ടിയെ എതിർക്കുന്നു ആ പാർട്ടി അങ്ങനെ തമ്മില് ഇടിയായി പിന്നെ മതപരമായി ആണേലും മതക്കാരുമായി ഇടിവയ്ക്കുന്നു മൊത്തത്തിൽ ഇടിയായിട്ട് ആണ് എനിക്ക് തോന്നിയത് ഇപ്പോള് എന്തോ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതല് എന്തുവാണ് റീച്ച്യ്ത് നില്ക്കുന്നത് പാർട്ടിക്കാര്യവും മത പരമായ കാര്യവും ആണ്